പ്രായമുള്ളവർ കളിക്കുന്നതെന്ന് പറഞ്ഞ അധികം ശാരീരിക ആയാസമില്ലാത്ത കളികളാണ് കൂടുതലും അവർക്കിരുന്നുകൊണ്ട് സാധിക്കുന്ന അതായത് അധികം മാനസികമായി മാത്രം ഉല്ലാസം കണ്ടെത്താൻ പറ്റുന്ന കളികളാണ് പ്രായമായവർക്ക് പറ്റിയത് അത് പല രീതിയിൽ ഇപ്പോൾ ചെസ്സ് കാരംസ് അങ്ങനത്തെ കളികളൊക്കെയാണ് അവർക്ക് ഏറ്റവും സാ സാധ്യമായിട്ടുള്ളത് അങ്ങ പിന്നെ പണ്ട് കാലത്ത് നമ്മൾ ചെയ്തിരുന്ന കളികൾ എല്ലാം അല്ലാതെ ശാരീരിക ആയാസൊള്ള കളികൾ പ്രായമായവർക്ക് ഒട്ടും പറ്റുന്നതല്ല